നമ്മൾ ഒരു ഫോർ സീറ്റ് കാർ എടുക്കാൻ വേണ്ടിയായിരുന്നേ

ലോ ബഡ്ജറ്റ് അല്ല ഒരു ഐ ടെണ്ണോ ഐ ട്വൻറ്റിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കാൻ വേണ്ടി ആയിരുന്നു അല്ലെങ്കിൽ സ്വിഫ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഹ്മ്

ഹ്മ് ഹ്മ് ഹ്മ് അപ്പം നമുക്ക് ലോൺ ഇട്ട് എടു എടുക്കാൻ വേണ്ടിയായിരുന്നു മൂന്ന് ലക്ഷം രൂപ അല്ലേ ഡൗൺ പേയ്മെൻറ്റ് എത്രയാണ് നയൻ തൗസൻഡ് അല്ലേ ആ ആ ഓക്കെ ഓക്കെ അങ്ങനെ ആണെങ്കിൽ പിന്നെ വേറെ ഏതൊക്കയാണ് മോഡൽ ഉള്ളത് ഇപ്പോൾ എന്തെങ്കിലും പുതിയ ഫീച്ചേർസ് എന്തെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ

ഹ്മ് ഹ്മ് ഹ്മ് ഹ്മ് അങ്ങനെ അല്ലേ അലോയ് വീൽസ് ഒക്കെ ഇപ്പോൾ പുറത്ത് പോലീസ് ഒക്കെ പിടിക്കില്ലേ അപ്പോൾ അതൊന്നും നടക്കുന്ന കാര്യമല്ല ആണല്ലേ ആ ആ ആ ആണല്ലേ ഹ്മ് അപ്പോൾ കുഴപ്പമില്ല പിന്നെ വേറെ എന്തൊക്കെയാണ് ഉള്ളത് വേറെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉള്ളത് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഉള്ളത് ആണല്ലേ ആ ഹാ ഹാ

നാല് എയർ ബാഗ് ചെയ്തുതരുമ്പോൾ നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും എമൗണ്ട് വേണോ അതോ നിങ്ങൾ എല്ലാം കൂടെ ഇതാക്കിയിട്ടാണോ നമ്മൾ എങ്ങനെ വേറെ ഇത് വരുമ്പോഴേ എക്സ്ട്രാ നമ്മൾ അതായത് എയർ ബാഗ് നാലെണ്ണം വരുമ്പം നമ്മൾ എക്സ്ട്രാ പേ പേ ചെയ്യണോ അതോ എല്ലാം കൂടെ ഇത് ആണല്ലേ ആ അപ്പോൾ കുഴപ്പമില്ല അങ്ങനെ ആണെങ്കിൽ നമ്മൾ എടുക്കാൻ ആകുമ്പോൾ അതായത് നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കിയതാണ് അപ്പോൾ രണ്ട് രണ്ട് ഇതിൽ നോക്കി രണ്ട് ഷോറൂമിൽ നോക്കി അപ്പോൾ നമ്മൾ ആ അങ്ങനെ ആണെങ്കിൽ നമ്മൾ തീരുമാനിച്ചിട്ട് നിങ്ങളെ ഓക്കെ ഓക്കെ